പിന്നെ പഠനത്തെക്കുറിച്ച് പറയാണെങ്കിൽ പഠനമായിട്ട് എനിക്ക് വലിയ ഇതില്ല ചെറിയ ക്ലാസ്സിലെ പഠനം നിര്ത്തേണ്ടിവന്നു അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് പഠിക്കാന് വേണ്ടിയിട്ട് പറ്റിയില്ല പിന്നെ വീട്ടിലച്ചനും അമ്മയ്ക്കൊക്കെ അങ്ങനെ അതിനുള്ള ഒരു താല്പര്യവും ഇല്ലായിരുന്നു നിര്ബന്ധമായിട്ട് നമ്മളെ സ്കൂളിലാക്കണം എന്നുള്ള ഒരിതില്ല എനിക്കാണെങ്കിൽ സ്കൂളില് പോകാന് വലിയ താല്പര്യവുമില്ല അത് വേറൊരു വിഷയം സ്കൂളില് ചെന്നാല് ഉറങ്ങാനെ എനിക്ക് സമയമുള്ളൂ പുസ്തകം കയ്യിൽ തരുമ്പോഴുതന്നെ ഞാന് അവിടിരുന്നു ഉറങ്ങും പിന്നെ എനിക്ക് പഠിക്കാന് വലിയ ഇഷ്ടമില്ലായിരുന്നു അതാണ് സത്യം പക്ഷേ ഇന്നാ ആ പഠിക്കാൻ പോകാത്തതിന്റെ വിഷമം എനിക്ക് ഇന്നുണ്ട് ബുദ്ധിമുട്ടും മനസ്സിലാക്കുണുണ്ട് അതുകൊണ്ട് ഞാൻ പഠിച്ചില്ലാ അതുകൊണ്ട് എന്റെ മക്കളെയെങ്കിലും പഠിപ്പിക്കണമെന്നാണ് ഞാനെന്റെ മക്കളെയൊക്കെ നല്ലതുപോലെ ഒക്കെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ പഠനം എന്തായാലും നടന്നില്ല പിന്നെ ഞാന് നേരെ തയ്യൽ പഠിക്കാനായിട്ട് പോയി രണ്ടുവര്ഷം തയ്യൽ പഠിച്ചു രണ്ടുവര്ഷം തയ്യൽ പഠിച്ചിട്ട് പിന്നെ തയ്യ്ക്കാനൊക്കെ തുടങ്ങി പിന്നെ കടകളില് തയ്യ്ക്കാന് പോകുവായിരുന്നു

പിന്നെ നല്ലതുപോലെ തയ്ക്കും ബ്ലൌസ് തയ്ക്കും പാവാട തയ്ക്കും ഷര്ട്ട് തയ്ക്കും പാൻറ്റ്സ് ചുരിദാര് പിന്നെ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെയാണെങ്കിൽ ഒരുപാട് യുണിഫോമൊക്കെ കിട്ടും ഇഷ്ടം പോലെ തൈയ്ക്കാനൊക്കെ കിട്ടും ഇപ്പോൾ എന്റെ ഉപജീവനമാര്ഗം അതാണ് നല്ലതുപോലെയൊക്കെ തയ്ക്കുന്നുണ്ട് വേറെ